ലോക്ക്ഡൗണിൽ ആളുകൾ വീടിനുള്ളിൽ ഓരോ ആൾക്ക് ഓരോ ആളും അവരുടെ വീടുകളിലേക്ക് ചുരുങ്ങിയപ്പോൾ അവർ കൂടുതലായിട്ട് സോഷ്യല് മീഡിയ അല്ലെങ്കില് നമ്മുടെ സാമൂഹിക മീഡിയകള് കൂടുതലായിട്ട് ഉപയോഗിക്കുകയും മൊബൈലിന്റെയും ലാപ്ടോപ്പിന്റെയും ഒക്കെ ഉപയോഗം കൂടുതലാവുകയും ആണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കോവിഡ് കാലഘട്ടത്തിന്റെ സമയത്തും അതുകഴിഞ്ഞുള്ള സമയത്തും ഞാന് കോവിഡ് നടന്ന സമയത്ത് ഞാൻ ഒരു കോളേജ് ഒരു ബിരുദ വിദ്യാര്ത്ഥി ആയിരുന്നു അതുകൊണ്ടു തന്നെ എനിക്ക് ഓണ്ലൈന് ക്ലാസുകളാണ് കോവിഡ് സമയത്ത് ഉണ്ടായിരുന്നത് വീട്ടിൽ ഇരുന്ന് അറ്റൻ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്റെ അനുഭവം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാല് ഒരിക്കലും നമ്മുടെ ഓണ്ലൈന് വിദ്യാഭ്യാസം നമ്മൾ സ്കൂളില് പോയി നേരിട്ട് ഒരു അദ്ധ്യാപിക വിദ്യാര്ത്ഥി നേരിട്ടുള്ള ഒരു ബന്ധം ഉള്ളത് പോലെ ഒരിക്കലുമാകില്ല ഒരിക്കലും നമുക്ക് നേരിട്ട് അവരുടെ ഗുരു മുഖത്തു നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് അത് ഒരിക്കലും നമുക്ക് ഒരു ഓണ്ലൈന് ക്ലാസ് അറ്റൻ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടില്ല മറ്റൊരു കാര്യം എന്തെന്ന് വച്ചാൽ നമ്മൾ ഇപ്പോൾ ഓണ്ലൈന് ക്ലാസെന്ന് പറയുമ്പോഴത്തേക്കും പല രീതിയിൽ ആയിരിക്കും പത്തും നൂറും നൂറ്റി അമ്പതും കുട്ടികൾ ഒരുമിച്ച് ഇരുന്ന് ഒരേ സമയം ക്ലാസിൽ ഇരിക്കുന്നുണ്ടാവും മിക്കവാറുമുള്ള ഓണ്ലൈന് ക്ലാസ്കളിൽ ഒന്നും തന്നെ അവര്ക്ക് മുഖങ്ങൾ അദ്ധ്യാപകനോ അദ്ധ്യപികക്കോ കാണാന് സാധിക്കില്ല എന്തെങ്കിലും രീതിയിൽ ആര്ക്കെങ്കിലും ഒരു ചോദ്യം ഉന്നയിക്കാനോ ഒരു സംശയം തീര്ക്കാനോ ഉണ്ടെങ്കില് മാത്രം അവർ ഓഡിയോ ഓണ് ചെയ്ത് സംസാരിക്കുമെന്നുള്ള ഒരു രീതി ആയിരുന്നു അപ്പം അത് കാരണം ആ ഒരു വിദ്യാര്ത്ഥിയില് നിന്ന് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കില് നേരിട്ടുള്ള ഒരു ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാവും എന്നൊരു അദ്ധ്യാപകന് അറിയാന് സാധിക്കില്ല അതുപോലെ ഇത് വളരെ ഓണ്ലൈന് ഫോണിൽ കൂടെ ഉള്ള ഒരു ഇത് ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്ന വളരെ പാസീവ് ആയിട്ട് നമുക്ക് പ്രത്യേകം ചെയ്യാനില്ലാത്ത ഒരു പഠനമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്റെ മാത്രം അഭിപ്രായമാണ് എല്ലാവര്ക്കും അങ്ങനെയാണോ എന്നറിയില്ല